ഇപ്പം അങ്ങനത്ത ഇടയ്ക്കൽ ഗുഹ ഒക്കെ നല്ലൊരു ക്ലൈമ്പിങ് സ്പോട്ടാണ് അപ്പം ഇടക്കൽ ഗുഹ എന്ന് പറയുന്നത് ഒരുപാട് മലകളും ചുറ്റപ്പെട്ട അങ്ങനെയൊക്കെയാണ് അപ്പം എന്റെ വീടിന്റെ അമ്മ വീടിന്റെ അടുത്ത് എന്താ പറയുക ക്വാറിയും അങ്ങനെയൊക്കെയുള്ളത് കൊണ്ട് നമുക്ക് അവിടെയൊക്കെ പോണ് മണിക്കുന്ന് മല എന്നു പറയും അവിടെയൊക്കെ പോണെങ്കില് എന്താ പറയുക രാവിലെ പോയി ഒരു ടൈമില് ഒരു പൂജയൊക്കെയുണ്ടാവും മാസങ്ങളിൽ ഒരു പൂജ ഉണ്ടാവും അപ്പോൾ നമ്മള് പോവുമ്പം എന്താ പറയുക ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒരുപാട് മലകൾ കയറിയിട്ട് പോവേണ്ട അപ്പം അവിടൊക്കെ കൽപ്പറ്റ ഭാഗങ്ങളിൽ ഒക്കെ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് പറയാം പിന്നെ നമുക്ക് പറയാം മൈലാടിപ്പാറ മൈലാടിപ്പാറ എന്ന് വെച്ചിരുന്നാല് കുറച്ച് നമുക്ക് എന്താ പറയുക ഒന്ന് വിശ്രമിക്കാൻ ഒക്കെ പറ്റിയ ഒരു എന്താ പറയുക ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള സ്ഥലമാണ് അവിടെയൊക്കെ പോകണമെങ്കില് എന്താ പറയുക നമുക്ക് പച്ചപ്പും ഭംഗിയും ഒക്കെ ആസ്വദിക്കയും ചെയ്യാം നമുക്ക് എന്താ പറയുക പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുന്ന സമയമാണ് പിന്നെ കുറച്ചു കാമ്മും കൂളും അങ്ങനെ കുറെ ജെയിൻ ടെമ്പിളും അങ്ങനത്ത കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ടൈം സ്പെൻറ് ചെയ്യാനോക്കെ പറ്റുന്നൊരു സ്പോട്ടായിട്ടാണ് മൈലാടിപ്പാറ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളു ഒരുപാട് ആൾക്കാര് ഇപ്പഴും വന്നൊണ്ടോക്കെ നിൽക്കുന്നുണ്ട് അവിടെ എൻട്രൻസ് ഫീ മാത്രമേ ഇല്ലാന്നൊള്ളോരു ഇതുണ്ട്